എൻ്റെ പേര് ജയമ്മ ഫിലിപ്പ് ഞാൻ അനുഗ്രഹ സ്വയം സൽ സംഘത്തിലെ അംഗമാണ് ഞാൻ എൻ്റെ ജോലിയെന്നു പറഞ്ഞാൽ കോഴി വളർത്തലാണ് ആദ്യം ഞാൻ പത്തു കോഴിയെ വാങ്ങിച്ചു അതിനെ പരിപാലിച്ച് അത് വളർന്നു വന്നു അതു മുട്ടയൊക്കെ തരാൻ തുടങ്ങിയപ്പം പിന്നെ അതു മുട്ടയെ വീടുകളിലും കടകളിലുമൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പൈസ കൊണ്ട് പത്തു കോഴിയെക്കൂടി വാങ്ങി വാങ്ങിച്ചു കഴിഞ്ഞപ്പം പിന്നെ അതു ഞാൻ പിന്നെ വിപുലീകരിച്ചു അതിന് തീറ്റ കൊടുക്കുന്നുവെന്നു പറഞ്ഞാൽ രാവിലെ എന്നാൽ ഗോതമ്പ് ഗോതമ്പ് തലേ ദിവസം വെള്ളത്തിൽ ഗോതമ്പിട്ടിട്ട് അതു കുതിർത്തു വെച്ചിട്ട് രാവിലെ അതു കൊടുക്കും അതിൻ്റെ കൂടെ തുളസിയിലയും പനിക്കൂർക്കയിലയും വെ വെന്ത വെള്ളം കുരുമുളകും കൂടി ഇട്ട് വെന്ത വെള്ളം പിന്നെ ആറിച്ച് അതുങ്ങൾക്കു കുടിക്കാൻ കൊടുക്കും അങ്ങനെ രാവിലെ കൊടുത്തു കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇത് പച്ചപ്പുല്ല് പച്ചപ്പുല്ലിനകത്ത് തുളസിയില പണിക്കൂർക്കയില വാഴച്ചുണ്ട് പിന്നെ കണ്ട കണ്ടത്തിൽ പോയി അവിടുന്നുള്ള പുല്ലുകൾ ശേഖരിച്ച് മുറിച്ച് ഇതെല്ലാം കൂടി കൂട്ടി ഇളക്കി അതിന് കൊടുക്കും അതു കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞതു പോലെ അതിനു വെള്ളം രാവിലത്തെ വെള്ളം കൊടുക്കും തുളസിയിലയും കുരുമുളകും പനിക്കൂർക്കയിലയും കൂടി ഇട്ട് വെന്ത വെള്ളം അതു കഴിഞ്ഞ് ആഴ്ചയിലൊന്ന് പച്ചമഞ്ഞൾ ചതച്ച് അതു തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കൊടുക്കും പിന്നെ ഇടക്ക് ഈ ചോറൊക്കെ ഉണ്ടെങ്കിലത് പിള്ളേര് കഴിച്ച ചോറും അതൊക്കെയുണ്ടെങ്കിലത് മിച്ചം വരുന്നതൊക്കെ ഇടക്കിട്ടു കൊടുക്കും

കൂട് വൃത്തിയാക്കുന്നുവെന്നു പറഞ്ഞാൽ പിള്ളേർ രണ്ടു പേർ സ്കൂളിൽ പോയിക്കഴിയുമ്പോൾ ഞാൻ കോഴിക്കുട്ടിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വല ചുറ്റും കെട്ടിയിട്ട് കോഴിക്കൂടിനു ചുറ്റും വല കെട്ടും വല കെട്ടിയിട്ടതിനകത്തോട്ട് ഇറക്കി വിടും എന്നിട്ട് കോഴിക്കൂടും വൃത്തിയാക്കി എന്നാൽ കോഴിക്കുഞ്ഞുങ്ങളെ എന്നാൽ കൂടു വലക്കകത്താക്കും അതു കഴിഞ്ഞ് സ സന്ധ്യയാകുമ്പോഴാണ് പിന്നെയും കോഴിക്കൂട്ടിൽ കയറ്റുന്നത് അപ്പം കുമ്മായം പിന്നെ കോഴിക്കൂട്ടിനു ചുറ്റും വിതറും വിതറി കഴിഞ്ഞിട്ട് കോഴി നിൽക്കുന്ന ഭാഗവും പിന്നെ രാത്രി സന്ധ്യയാകുമ്പോൾ കോഴി കയറി കഴിയുമ്പോൾ അതെല്ലാം പിന്നെ വൃത്തിയാക്കി കുമ്മായം വിതറി ഇടും പിറ്റേ ദിവസം രാവിലെ ഒരു ഇത് അഴുക്കൊന്നും പിടിക്കാതെ കോഴികൾക്ക് സുരക്ഷിതമായിട്ടതിനകത്തു നിന്ന് തീറ്റെയെടുക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഇണക്കി കൊടുക്കും പിന്നെ കോഴിയെ ആവശ്യക്കാർക്കു കൊടുക്കും മുട്ടയിടൽ കഴിയുന്ന കോഴികളെ ഞാൻ എന്നാ ഇരുനൂറ്റി അൻപതും മുന്നൂറും രൂപയ്ക്കൊക്കെ ഭക്ഷണത്തിനായിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അതൊരു നല്ല ബിസിനെസ്സായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ നൂറു കോഴിയോളം ബിസിനെസ് ചെയ്തു കുറേയൊക്കെ വീട്ടിലെ കാര്യങ്ങൾക്കു വേണ്ടി പൈസ ഉപയോഗിക്കാനായിട്ടു സാധിച്ചു അതൊരു വലിയ ബിസിനെസ്സായിട്ടു ഞാൻ കരുതുന്നു പിന്നെയെന്നു പറഞ്ഞാൽ പിന്നെ ഇത് ആഴ്ച്ചയിലൊരു ദിവസം മഞ്ഞൾ പച്ചമഞ്ഞൾ ചതച്ച് ഇതുങ്ങൾക്ക് കൊത്തി തിന്നാനായിട്ടു കൊടുക്കും അതുങ്ങൾ ഈ എന്തെങ്കിലും ഈ കാൽസ്യപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അതങ്ങു തിന്നും അത് അതു കാരണം കോഴിക്കൊരു എന്നാൽ അസുഖങ്ങളോ ഒരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല എല്ലാം നല്ല കനമുള്ള കോഴികളുമൊക്കെ ആയിട്ട് പോകുന്നു ഇപ്പോഴും ബിസിനസ്സ് തുടർന്നു കൊണ്ടിരിക്കുന്നു കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നു